ഒരു പ്രദേശത്തിൻറെ അനുസരിച്ച് നാടോടി പാട്ടുകൾ ഉണ്ട് ഞങ്ങളുടെ പ്രദേശത്തു കൊയ്ത്തു കാലത്ത് പിന്നെ ഒരു പാട്ടുണ്ട് പെണ്ണുങ്ങളൊക്കെ കൊയ്ത്തു പാടുമ്പോൾ കൊയ്യുമ്പം നല്ല രസമാണ് കേൾക്കാൻ ഈണത്തിനനുസരിച്ച് പീന്നെ കൊയ്യുകയും പിന്നെ കള പറിക്കുകയും നടുകുകയൊക്കെ ചെയ്യുമ്പോഴുള്ള പാട്ടുണ്ട് പിന്നെ വള്ളം കളിക്കുള്ള പാട്ടുകളുണ്ട് തിതൈ തിത്തക തിത്തൈയെന്നും പറഞ്ഞു കൊണ്ട് എനിക്ക് പാട്ട് നന്നായിട്ടൊ അറിയത്തില്ല പാട്ട് കേൾക്കാൻ എനിക്കിഷ്ടമാണ് പാട്ടിനെക്കുറിച്ച് പീന്നെ നാടോടി പാട്ടുകൾ കേൾക്കാൻ നല്ല കാതിന് ഇമ്പമുള്ളതും പിന്നെ അതു പാടുന്നതു കാണാൻ കണ്ണിനു നല്ല പിന്നെ കാഴ്ച കാഴ്ച അതിമനോഹരവുമായ പാട്ടുകളാണ് നാടോടി പാട്ടുകളായിട്ടു കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത് നാടോടി പാട്ട് കേൾക്കാൻ നല്ല രസമാണ് കേൾക്കാനും കേ പിന്നെ കാണാനും അവർ പാടുന്ന രീതിയൊക്കെ കാണാനൊക്കെ നല്ല രസമുള്ളതാണ്